ആ പ്ലീസ് കം വാട്ട് കേൻ ഐ ഡൂ ഫോർ യു ആ ആ ആ ആ പറയു ആ ഓക്കെ സാധാരണ സേവിംഗ് അക്കൗണ്ട് തന്നെ അല്ലെ അല്ല നമുക്ക് ഇപ്പോൾ ആ അല്ല നമുക്ക് ഇപ്പോൾ ബിസിനസ്സ് ഒക്കെ ആണെങ്കിൽ ബിസിനസ്സിൻ്റെ വല്ല കാര്യത്തിനും കറണ്ട് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എൻ ആർ ഐ ഒക്കെ ആണെങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ചോദിച്ചത് ആണ് ഓക്കെ എന്താ കോൺസെൻ്റ് ഐ ഡി പ്രൂഫ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഉണ്ടോ കയ്യിൽ ഉണ്ടോ അത് അല്ല ഫോട്ടോ ഉണ്ടാവും അല്ലൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവില്ലെ ആ അത് മതി അത് മാത്രം മതി ആ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും ആ പാൻ കാർഡും മാത്രം മതി നമുക്ക് ഇപ്പോൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് ആ ആ ഓക്കെ നമുക്ക് ഇപ്പോൾ ടു തൗസൻ്റ് റുപ്പീസ് ആണ് നമുക്ക് മിനിമം ബാലൻസ് വയ്ക്കേണ്ടത് ആ അത് ആ അതെ അതെ സേവിംഗ് തന്നെ ആണ് ഇപ്പം എല്ലാ ബാങ്കുകളിലും കമ്പൽസറി ആണ് ടു തൗസൻ്റ് റുപ്പീസ് ആണ് ഇപ്പം എല്ലാ ബാങ്കുകളിലും മിനിമം ബാലൻസ് നമുക്ക് ആ മിനിമം ബാലൻസ് ടു തൗസൻ്റ് ഉള്ള അക്കൗണ്ട് ആണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത്

ഇല്ല രണ്ടായിരം നമ്മൾ മാക്സിമം വയ്ക്കാതെ വയ്ക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾ നമ്മൾ മിനിമം ബാലൻസ് നമ്മൾ വയ്ക്കില്ലെങ്കിൽ പിന്നെ ചാർജെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നൂലാമാലകൾ വരും പിന്നെ അത് പ്രശ്നം ആവും അതുകൊണ്ടാണ് ഇപ്പോഴെ ആദ്യമെ പറയാമല്ലോ ഞാൻ നമ്മൾ രണ്ടായിരം നമ്മൾ മെയിൻ്റയിൻ ചെയ്ത് പറഞ്ഞോളൂ സാർ ആ ആദ്യത്തെ അതായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ആ പെട്ടെന്നുതന്നെ അത് ചെയ്താൽമതി ഇപ്പോൾ അല്ലാണ്ട് നമ്മൾ ഒരു ആ മന്ത് എൻ്റ് മന്തിൻ്റെ എൻ്റിൻ്റെ സമയത്ത് ഒക്കെ ആണ് നമ്മൾ കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പം ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ആണ് ചാർജസും അതൊക്കെ എക്സ്ട്രാ ചാർജോക്കെ നമ്മളതിൽ നിന്ന് പിടിക്കുക അപ്പോഴേക്കും നമ്മൾ ഒന്ന് വേഗം തന്നെ നമ്മൾ ചെയ്താൽമതി ഡെപ്പോസിറ്റ് വീണ്ടും നമ്മൾ അത് കീപ്പ് ചെയ്താൽ മതി ടു തൗസൻഡ് റുപ്പീസ്

ആ എ ടി എം കാർഡ് ആ നമ്മളിപ്പം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒര് ഒരാഴച്ചയ്ക്ക് ഉള്ളിൽ നമുക്ക് ചെക്ക് ചെക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ ടി എം കാർഡും നമുക്ക് ഓ എ ടി എം കാർഡ് നമുക്ക് ഒരു ഒരു പതിനഞ്ച് ദിവസം എന്നൊക്കെ പറയുന്നത് അതിന് ഉള്ളിൽ നമുക്ക് എ ടി എം കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരും അപ്പം ആ എ ടി എം കാർഡ് വന്നത് അഡ്രസ്സ്

ഏഹ് ആ എ ടി എം കാർഡ് മാത്രം മതിയോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അല്ല ശരിക്കും നമുക്ക്

അതെ അതെ അതെ അതെ ആ അത് നമുക്ക് ഇൻ്റെർനെറ്റ് ബാങ്കിൻ്റെ ചെയ്താൽമതി ആ അതിപ്പോൾ നമുക്ക് ചെയ്യാം നിങ്ങളുടെ ഫോൺ നമ്പറ് നമ്മുടെ ബാങ്കിൽ തരുന്ന ഫോൺ നമ്പറ് ആ ആയിരിക്കാം നമുക്ക് ഗൂഗിൾ പേയെന്ന് മാത്രം അപ്പം അത് നമുക്ക് എ ടി എം കാർഡ് ആ എ ടി എം കാർഡ് വന്നു കയിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റ നമ്പർ അടിച്ച് കൊടിത്തിട്ട് ഗൂഗിൾ പേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആ

ആ ഇപ്പം തന്നെ ചെയ്തു തരാം ഞാൻ ഒരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ്റ് ഹവർ ഹാഫ് ആൻ്റ് ഹവറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ആ ആ ഓക്കെ ഓക്കെ ശരി ശരി